ഹലോ താജ് ഹോട്ടൽ അല്ലേ ഓക്കെ എൻ്റെ പേര് ഡെൽവിൻ എന്ന് ആണേ അപ്പം ഞാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട് അപ്പം എനിക്ക് ഇവിടുത്തെ ആ ഹോട്ടലിലെ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാമോ ഓക്കെ ഓക്കെ അപ്പം ഇത് പിടീന്റെ കോമ്പിനേഷൻ എന്താണ് കോഴിക്കറിയാണോ

ഓക്കെ ഓക്കെ ഈ പിടീൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്

മതി മതി മതി മതി മതി മതി ഓക്കെ എന്നാൽ അങ്ങനെ അതിന്റെ റേറ്റ് എങ്ങനെ ആയിരുന്നു മേഡം ഒര് പ്ലേറ്റ് പറയുമ്പോൾ എത്ര പേർക്ക് കഴിക്കാം ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പേർക്ക് കഴിക്കാം ഞങ്ങൾ ഒരു എട്ട് പേരുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ വേറെ വേറെ എന്താണ് വേറെ എന്താണ് ഇന്ന് സ്പെഷ്യൽ ഉള്ളത് അവിടെ ബേച്ചൽ വരുന്നത് എങ്ങനെയാണ് സോസിലാണോ അതോ ഫ്രൈ ടൈപ്പ് ആണോ ഓക്കെ ഓക്കെ അപ്പം അതിന്റെ അത് മാം ബിരിയാണിയോ അതെങ്ങനെ ഉണ്ട് അതോ ഫ്രൈ ടൈപ്പ് ചെയ്ത വെഡ്ജസ് വരുന്നത്

നൂറ്റി അമ്പതോ അപ്പം ഈ ദം ദമ്മിൻ്റെയും ദമ്മിൻ്റെയും സാദാ നോർമൽ വ്യത്യാസം അല്ല അതിൻ്റ വ്യത്യാസം എന്താണ് മാഡം രണ്ടിൻ്റെയും അപ്പം മാം ഈ ബിരിയാണീന്റെ മാം മാം ബിരിയാണീന്റെ പീസസ് എങ്ങനെയാണ് ഫ്രൈ ചെയ്ത പീസ് ആണോ അതോ നമ്മൾ സാദാ എങ്ങനെയാണ് ബോയിൽ ചെയ്ത പീസസ് ആണോ ഓക്കെ അല്ല അപ്പം ചിക്കൻ ചിക്കനിൽ മാത്രമേ ഉള്ളൂ ബീഫിൽ ഇല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഹോം ഡെലിവറി ഉണ്ടോ ഓക്കെ ഓക്കെ വൈകുന്നേരം ഞാൻ അതാവുമ്പം ഒരു രണ്ട് പ്ലേറ്റ് പിടിയും കോഴിയും ഒരു ദം ബിരിയാണിയും ഒന്ന് എത്തിച്ചുതരുമോ ഹോം ഡെലിവറി ചെയ്തുതരുമോ

ഡിസ്കൗണ്ട് ഇല്ലേ മാം ആ ഓക്കെ ഫൈൻ മാം ഞാൻ ഇട്ടുതരാം ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഫൈൻ താങ്ക് യൂ